യോഗ എന്നു പറയുന്നത് ഒരു വ്യായാമം മാത്രമല്ല അത് നമ്മളെ മെൻറ്റലി കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ രാവിലെ രാവിലെയും രാവിലെയോ വൈകുന്നേരമോ നമുക്ക് യോഗ ചെയ്യാവുന്നതാണ് ഇത് കൂടുതലും നല്ലത് രാവിലെ ചെയ്യുന്നതാണ് അപ്പം അത് രാവിലെ ചെയ്യുന്ന സമയത്ത് നമ്മളീ സ യോഗ ചെയ്യുമ്പോൾ കുറച്ചു കൂടി പീസ്ഫുള്ളായിട്ടിരുന്ന് സമാധാനത്തോടിരുന്ന് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ അധികം ശബ്ദങ്ങളൊന്നുമില്ലാതെ ചെയ്യുമ്പോഴായിരിക്കും യോഗ ചെയ്യുന്നത് കുറച്ചും കൂടി എഫക്ടിവാണ് കാരണം നമുക്കൊരു മെഡിറ്റേഷൻ പോലെയൊരു ഫീലിങ്ങാണ് നമുക്ക് യോഗ ചെയ്യുന്നതിലൂടെ ലഭി ലഭിക്കുന്നത്